ആദ്യമായിട്ട് പാടാൻ തോന്നിയതെപ്പോഴാണെന്ന് ചോദിച്ചാൽ സ്കൂളിൽ പഠിക്കുന്ന കാലഘട്ടങ്ങളിൽ എനിക്ക് തോന്നുന്നു എന്തോ ഒരു മത്സരത്തിൻ്റെ ഭാഗമായിട്ട് പാട്ട് പാടാൻ താൽപ്പര്യമുള്ള അതൊരു ഒരു സംഘഗാനമായിരുന്നു പാട്ടുപാടാൻ താൽപ്പര്യമുള്ള കുട്ടികളെ കുറച്ച് പേരെ ടീച്ചർമാർ തിരഞ്ഞെടുത്തപ്പം ഞാനും എല്ലാരുടേയും കൂടെ എഴുന്നേറ്റു സാധാരണ പോലെത്തന്നെ നിന്ന് പാടി പക്ഷേ പാട്ട് പാടുമ്പോൾ എന്തോ ഒരു പ്രത്യേകത എല്ലാവരെക്കാട്ടിൽ കൂടുതൽ എനിക്കെന്തോ ഇഷ്ടം തോന്നുന്നുണ്ടായിരുന്നു പാട്ട് പാടണമെന്നുണ്ടായിരുന്നു പള്ളിയിലാണെങ്കിലും കൊയറിൽ കയറണമെന്നുണ്ടായിരുന്നു അങ്ങനെ എല്ലാ രീതിയിലും പാട്ടിനോടൊരു പ്രത്യേക താൽപ്പര്യം എനിക്ക് തോന്നിത്തുടങ്ങി മാത്രമല്ല വളരെ മനോഹരമായ രീതിയിൽ മനസ്സിന് സന്തോഷം തരുന്നൊരു കാര്യമാണ് പാട്ടെന്ന് പറയുന്നത് പാട്ടിനങ്ങനെയൊരു കഴിവുണ്ട് പാട്ടുപാടി ആൾക്കാരിലേക്ക് എത്തുകയെന്ന് പറഞ്ഞാലും ആൾക്കാരുടെ മനസ്സിലൊരിടം പിടിക്കുകയെന്ന് പറയുന്നത് ചെറിയ കാര്യമല്ലല്ലോ സ്കൂളിൽ പഠിക്കുമ്പോളാണ് ആദ്യമായിട്ട് പാടാൻ താൽപ്പര്യം തോന്നിയത് ഇതിലേക്ക് നയിച്ചെന്ന് പറഞ്ഞാൽ പഴയകാല ഗാനങ്ങളൊക്കെ കേൾക്കുന്നത് വളരെ ഇഷ്ടമാണ് തൊണ്ണൂറുകളിലെ ഗാനങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിലൊക്കെയിറങ്ങിയ സിനിമകളിലെ പാട്ടുകളൊക്കെ എപ്പോഴും വളരെ മനോഹരമാണ് പ്രത്യേകിച്ച് കുറേ തമിഴ് പാട്ടുകളുണ്ട് അലൈപായുതേ എന്നു പറയുന്ന മൂവിയിലെ സിനിമയിലെ ഒരുപാട് പാട്ട് ഈരടികൾ വളരെ വളരെ തന്നെ മനസ്സിനോട് ചേർന്ന് നിൽക്കുന്ന ഒരുപാട് പാട്ടുകളുണ്ട് മലയാളിയായതിനെ സംബന്ധിച്ച് മലയാളം പാട്ടുകൾ മാത്രമല്ല തമിഴാണെങ്കിലും വളരെ പ്രിയങ്കരമാണ് അങ്ങനെയുള്ള പാട്ടുകളും